ഞങ്ങളുടെ പ്രദേശത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥയെന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ പ്രതികൂലമായൊരു കാലാവസ്ഥയാണ് കൃഷിക്ക് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു കാലാവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ തരണം ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മളുടെ പ്രദേശത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കൃഷിയെ തന്നെയാണ് പ്രത്യേകിച്ച് വാഴക്കൃഷിയെ തന്നെയാണ് ആശ്രയിക്കുന്നത് പക്ഷേ മഴക്കാലത്ത് വാഴ വാഴക്കൃഷി എന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമല്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഞാൻ ഞങ്ങളുടെ പ്രദേശത്ത് ഒരുപാട് കർഷകർ ഇപ്പോൾ വാഴക്കൃഷിയിൽ നിന്ന് മാറി റബ്ബർ കൃഷിയിലേക്കും അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്കും മാറിക്കൊണ്ടിരിക്കയാണ് അപ്പോൾ ഈ മാറ്റത്തിൻ്റെ ഒരു വഴിയുണ്ടാക്കി കൊടുത്തത് ഇപ്പോഴത്തെ ഒരു പ്രതികൂലമായ കാലാവസ്ഥ തന്നെയാണ് മഴ മഴക്കെടുതി വളരെ രൂക്ഷമായൊരു ബാ രൂക്ഷമായി ബാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് അതുകൊണ്ട് വാഴകൃഷിക്ക് അനുയോജ്യമായൊരു കാലാവസ്ഥയിൽ നിന്നും കാലാവസ്ഥ ഇല്ലാത്തതുകൊണ്ട് അതിൽ നിന്നും മാറി ചിന്തിച്ച് ആൾക്കാർ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് പോലുള്ള കൃഷിയിലേക്ക് കടന്നുകൊണ്ടിരിക്കയാണ് ഇപ്പം പ്രധാനമായിട്ടും ഞങ്ങളുടെ വീട് വീടിൻ്റെ പരിസരത്തുള്ള ഇടവേളകളായിട്ട് നടുന്ന കൃഷികളാണ് പയറും അതുപോലെ തന്നെ ഈ മരിച്ചീനിയും പയറും മരിച്ചീനിയും ഇല്ലാത്ത ഒരു കൃഷിത്തോട്ടം ഞങ്ങളുടെ പ്രദേശത്ത് അപൂർവം തന്നെയാണ് അപ്പോൾ ഈ മഴക്കെടുതി തന്നെയാണ് വ വ വലിയൊരു ശത്രു ആയിട്ട് ഞങ്ങളുടെ പ്രദേശത്തെ വിളകളെ എല്ലാത്തിനെയും നശിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ വേറെ ഒരു കാര്യം എടുത്തു പറയാണെങ്കിൽ വന്യജീവി ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് കൃഷിനാശത്തിൽ അത് പ്രധാനമായും പന്നിയും കാട്ടാനയും കാട്ടുപോത്തും വളരെ നെഗറ്റീവായിട്ടാണ് ഈ കൃഷിയെയൊക്കെ ബാധിക്കയൊക്കെ ചെയ്യുന്നത് അപ്പം കാലാവസ്ഥയും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യവും കാരണം യാതൊരു കൃഷിയും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരാവസ്ഥയിലേക്കാണ് ഞങ്ങളുടെ ഈ ഒരു പ്രദേശവും അതുപോലെ തന്നെ പ്രദേശവാസികളും മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നതുകൊണ്ടുതന്നെ എല്ലാ കൃഷി ഇടങ്ങളിലും പ്രത്യകിച്ചൊന്നും വിളകളൊന്നും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി ആ അനുയോജ്യം അല്ലാത്തതുകൊണ്ട് കർഷകരെല്ലാം മറ്റ് ജോലിക്ക് പൊക്കൊണ്ടിരിക്കയും കർഷകരുടെ വലിയൊരു ഗണ്യമായ കുറവ് നമ്മുടെ ഈ ഒരു പ്രദേശത്ത് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യമാണ് പറയാൻ വേണ്ടിട്ടുള്ളത്